ഞാൻ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ മലകയറ്റമെന്നു പറഞ്ഞാൽ നമ്മൾ മൂകാംബിക അമ്പലത്തിൽ നിന്ന് മുകളിലേക്ക് പോയിട്ട് നമ്മുടെ എന്താണ് പറയുക ശ്രീ ശങ്കരാചാര്യരുടെ ഒ ഒരമ്പലം നിൽക്കുന്ന സ്ഥലം ഇല്ലേ കുടജാദ്രി അതിലേക്ക് നമ്മൾ മുകളിലേക്ക് ആദ്യം ഒരു തുറന്ന ജീപ്പിൽ കുറേ മുകളിലേക്ക് പോവുമെങ്കിലും ഒരു പ്രത്യേക സ്ഥലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് ജീപ്പ് പോവില്ല പിന്നെ അവിടെ നിർത്തിയിട്ട് നമ്മൾ മുകളിലേക്ക് നടക്കുവാണ് വേണ്ടത് അത് നടക്കുന്നത് എത്രയോ കൊല്ലം മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ളതാണെങ്കിലും അതൊരു വലിയ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നെ ഞാൻ കയറില്ല ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന അവസ്ഥയിലും എന്നെ പറ്റും പറ്റുമെന്ന് ഹസ്ബൻഡ് പറയുമ്പോൾ കൂടെ എനിക്ക് കയറാൻ പറ്റി എന്നുള്ളതാണ് എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ അനുഭവം പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ആകാശം നമ്മൾ കൈ കൊണ്ട് തൊടുന്ന ഒരു അവസ്ഥയിൽ ആണ് നമുക്ക് ഫീൽ ചെയ്തത് അതൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്